പണ്ടത്തെ കാലം അപേക്ഷിച്ച് ഇപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന രീതി വളരെ വളരെ മാറിയിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ കടയിൽ പോയി പൈസ കൊടുത്താണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു കടയിൽ ഇല്ലെങ്കിൽ അവർ ഒരുപാട് ദൂരം നടന്ന് വേറെ കട തിരഞ്ഞ് ആ സാധനം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ ഒരുപാട് പാടുപെട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊഴത്തെ ഈ സാങ്കേതികവിദ്യ വന്നതിന് ശേഷം ആൾക്കാർക്ക് ഷോപ്പിംഗ് നല്ല എളുപ്പം ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആപ്പ് തുറക്കുക അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ സേർച്ച് ചെയ്യുക അതിന് ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ ഈ ഡെലിവറി മാൻ നമുക്ക് ഇത് കൊണ്ട് വീട്ടിൽ കൊണ്ടെത്തിക്കുന്നത് വരെ ഒരു പത്തോ പതിനഞ്ചോ മിൻ മിനിറ്റ് നമ്മൾ ഇതിന് കാത്തിരിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അതുപോലെ ഇപ്പം കയ്യിൽ തന്നെ പൈസ കൊടുക്കണം എന്നുള്ളത് നിർബന്ധം അല്ല അതിന് വേണ്ടി തന്നെ ഒരുപാട് ഗൂഗിൾ പേയോ ഫോൺപേയോ പോലത്തെ ഒരുപാട് ആപ്പും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മൾ അതിൽ നമ്മൾ പൈസ അടയ്ക്കേണ്ട അവശ്യമേ ഉള്ളൂ അപ്പം അവിടെയും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല ഇപ്പം ഫ്ലിപ്ക്കാർട്ട് ആയാലും ആമസോൺ ആണെങ്കിലും നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒരു പടം കാണുന്നു ഇഷ്ടപ്പെടുന്നു നമ്മുടെ സൈസിന് നമ്മൾ ചൂസ് ചെയ്യുന്നു അത് നമുക്ക് ഉടനെ നമ്മുടെ വീട്ടിൽ എത്തുന്നു പഴയ സമയം വെച്ച് ഇപ്പം ഷോപ്പിങ്ങ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നോ നമ്മുടെ ഓഫീസിൽ ഇരുന്നോ എവിടെ വെണമെങ്കിലും ഇരുന്ന് നമുക്ക് പബ്ലിക് പ്ലേസിൽ ഇരുന്നോ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് ഒരു സാധനം വാങ്ങാം അല്ലാതെ ഇതിന് വേണ്ടി നമുക്ക് മെനക്കെട്ട് ഒരു കടയിൽ പോവേണ്ട ആവശ്യം ഇപ്പം വരാറില്ല